ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകം എന്നെ വളരെ ഉറക്കെ ചിരിപ്പിച്ച പുസ്തകങ്ങളിൽ ഒന്ന് കൂടെയാണത് അതിലെ ആട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കുട്ടികളും ആ വീട്ടിലെ മറ്റ് അംഗങ്ങളെയെല്ലാം കവി നല്ല പോലെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് കൂടെയാണീ പാത്തുമ്മയുടെ ആട് എന്നത് ആട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കാരണങ്ങളും എല്ലാം കവി നല്ല വളരെ മനോഹരമായ രീതിയിൽ ആണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഏറെ രസകരമായ രീതിയിൽ ഈ ബുക്ക് വായിക്കുമ്പോൾ തന്നെ തോന്നുന്നു അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ച മറ്റൊരു പുസ്തകമാണ് ബോബനും മോളിയുമെന്ന ചിത്ര കഥ ഇതിൽ പറയുന്നത് പ്രധാനമായും രണ്ട് കുട്ടികളും നായയും തമ്മിലുള്ള നർമ്മ സംഭാഷണങ്ങളാണ് അതും കവി വളരെ മനോഹരമായ രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത്